ഗ്രാമപ്രദേശം നഗരപ്രദേശങ്ങളിൽ നിന്ന് ഉയർന്ന് വരുന്ന ഒരുപാട് രോഗങ്ങൾ ഇന്ന് നമുക്ക് പേര് പോലുമറിയാത്ത ഒരുപാട് രോഗങ്ങൾ ഉയർന്ന് വരുന്നുണ്ട് അതിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കൂടുതലായും കേട്ടു വരുന്ന അസുഖങ്ങളാണ് ഡെങ്കിപ്പനി മലമ്പനി അങ്ങനത്തെ അസുഖങ്ങൾ മലേറിയ ഇതൊക്കെ ഇപ്പം നമുക്ക് കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗറ് കൊളസ്ട്രോള് അങ്ങനത്തെ പ്രശ്നങ്ങളും നമ്മളിപ്പോൾ ഒരുപാട് കേട്ടു വരുന്നുണ്ട് കാരണം നമ്മുടെ ജീവിത ശൈലികൾ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം മറ്റ് അസുഖങ്ങളായ ഡെങ്കിപ്പനി മലമ്പനിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന വേസ്റ്റുകളിൽ നിന്ന് കൊതുകുകൾ മുട്ടയിട്ട് വളർന്ന് അങ്ങനെ ഉണ്ടാകുന്നതാണ് പ്ലാസ്റ്റിക്ക് വേയ്സ്റ്റുകൾ എന്ത് ഇവയെല്ലാം ഉണ്ടാകുന്ന നമ്മുടെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലമായിട്ട് തന്നെയാണ് ഇവയെല്ലാം നമക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യുക വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കിത് പകുതിയും നമുക്ക് തടയാൻ സാധിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാലുടനെ തന്നെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുക നമ്മൾ തന്നെ എന്തെങ്കിലും മരുന്ന് കഴിച്ച് കുറയ്ക്കാം എന്ന് ചിന്തിക്കാണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടറുകൾ ഡോക്ടർമാരെ തന്നെ കൺസൾട്ട് ചെയ്യുക അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് അസുഖങ്ങളിൽ നിന്ന് വിമുക്തരാവാം